പാട്ടിനെക്കുറിച്ചുള്ള എൻ്റെ ആഗ്രഹങ്ങളും ലക്ഷ്യംങ്ങളേയും കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിയും നല്ല പാട്ട്കാര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് അത് ആരും അങ്ങനെ കാണാത പോകുന്ന നിറയെ പാട്ടുകാരുണ്ട് അവർക്കൊര് വേദി കൊടുക്കണം അതെൻ്റെ വലിയൊരു ആഗ്രഹമാണ് അവർക്കൊര് വേദി കൊടുക്കണം ഇപ്പം ഞാനുൾപ്പടെ പാടുന്ന നിറയെ കുട്ടികളുണ്ട് എനി ഉണ്ട് എനിക്കൊര് വേദിയില്ല പാടാനായിട്ട് നമ്മുടെ പാട്ടില് പത്ത് ദിവസം മുന്നേ നല്ല കുട്ടി പാടുന്നുടെങ്കില് അവരെയാണ് മുന്നോട്ട് എടുക്കുന്നത് അല്ലാതെ വേറാൾക്കാർക്കൊന്നും അവസരം കൊടുക്കുന്നില്ല ആ ഒരു രീതി മാറ്റണമെന്നുള്ള എൻ്റെ വലിയ ഒരു ആഗ്രഹാണ് പിന്നെ നമ്മുടെ പാട്ടിൻ്റെ രീതികള് നല്ല നല്ല പാട്ടിറക്കണം നല്ല നല്ല പാട്ട് കേൾക്കാനുള്ള ഇത് വരണം പിന്നെ ഇപ്പഴത്തെ പാട്ട് അങ്ങനെ നല്ല പാട്ടൊന്നും ഇപ്പം ഉണ്ടാകാറില്ല എന്നാലും ഉണ്ടാകുന്ന പാട്ടെല്ലാം മുന്നോട്ട് കേൾക്കണം ഉണ്ടാകുന്ന പാട്ടെല്ലാം എല്ലാവരും എന്നാണ് അംഗീകരിക്കണമെന്നുള്ള വലിയ ഒരു ആഗ്രഹം എനിക്ക് പോകുന്നുണ്ട് അതുകൂടാതെ തന്നെ ലക്ഷ്യങ്ങളെനിക്ക് നല്ലൊര് പാട്ടുകാരി ആകണമെന്ന് വലിയൊരു ലക്ഷ്യമുണ്ട് അത് മറ്റുള്ളവര് അറിയണം ഞാൻ പാടുവോ എന്ന് അറിയണം ഇപ്പം ഞാൻ ഉൾപ്പടെ ഉള്ള മറ്റ് ഒത്തിരി കുട്ടികളുണ്ട് പാടുന്നത് അവരെല്ലാവരും അറിയണം പാട്ട് നല്ലൊരു നല്ലൊരു കലയാണ് പാട്ടെന്ന് പറയുന്നത്

എന്നെ ആരും കാണുന്നില്ല എന്നെ ആരും അറിയുന്നില്ല എന്നുള്ളൊരു ധൈര്യം ഉണ്ടാ ഉണ്ടാകാതിരിക്കാൻ പാടില്ല എന്നെ എല്ലാവരും കാണണം അല്ലെങ്കിൽ ഞാൻ പാട്ട് പാടുന്നത് എല്ലാവരും കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടാവും അവരെയെല്ലാം മുന്നോട്ട് കൊണ്ട് വരണമെന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് അപ്പം അത് മാത്രവല്ല നമ്മുടെ പാട്ടിനെ എനിക്കൊര് പാട്ട് എന്നാണ് ചെയ്യണം എനിക്കൊര് പാട്ട് ഉണ്ടാക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് ഞാന് പാട്ട് മാറണം പാട്ടിൻ്റെ രീതികള് മാറണം പഴയ പോലെ പാട്ടുകളൊക്കെ വരണം കേൾക്കാൻ ഇമ്പമുള്ള പാട്ടൊക്കെ വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാന് അപ്പം എന്താണ് പറയുക പാട്ടെന്ന് പറയുന്നത് വലിയൊരു കലയാണ് എല്ലാവർക്കും മറ്റും പാടാനറിയില്ല പക്ഷെ പാടാൻ അറിയാവുന്നവര് എല്ലാവരേയും മുന്നോട്ട് കൊണ്ട് വരിക ഇപ്പം അറിയാത്തവരെ കൂടെ പാട്ട് പഠിപ്പിക്കുക അതൊക്കെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളാണ് മുന്നോട്ട് നിൽക്കുന്ന പിള്ളാരെ എല്ലാവരെയും അല്ല പുറകോട്ട് നിൽക്കുന്ന എല്ലാവരെയും മുന്നോട്ട് കൊണ്ട് വരിക പാട്ടിൻ്റെ കാര്യത്തില്